ഹലോ സർ പറയു സർ ഓക്കേ ഫോൺ പ്രൈസ് നമ്മളുടെ സ്റ്റാർട്ടിങ് സിക്സ് തൗസന്ത് തൊട്ടാണ് കാരണം നമ്മളൊരു ലയേറ് അങ്ങനെ ഒണ്ട് ഡിസൈൻ എടുക്കുനൊട്ടാണ് ഓരോ ഡിസൈൻ ഇയ്യോ അജ്ജൂറു സർ അതൊക്കെ ലോ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും കാരണം ഇവിടെ നമ്മളുടെ ഒറിജിനലാണ് ഒറിജിനൽ ലയർ ആണ് ഫൈബറും അതെപോലെയാണ് ഒന്നാമതു വാട്ടർ പ്രൂഫാണ് സർ അല്ലല്ല സർ അകത്തു വെള്ളം കയറില്ല അകത്തു വെള്ളം കയറില്ല അതോണ്ട് ആകത്തും അല്ല ഇതിനകത്തു വെള്ളം കയറിയാൽ അത് പോകും അല്ല വെള്ളം മോയ്സ്ചർ കൊണ്ടെന്റ്റ് കുറവായിരിക്കും വെള്ളത്തിൻറ്റെ കാരണം നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്നതല്ല വെളി നാട്ടിന്നു കൊണ്ടുവരുന്നതാണ് അല്ല സർ ഇത് വായ് അല്ല ഇങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ട് സിക്സ് തൗസന്ത് കൊടുത്ത് പറയുന്നത് വാങ്ങിക്കുന്നവരും ഉണ്ട് കാരണം ഇത് നേരെ കറക്റ്റ് സർ ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ നോക്കി സാധനങ്ങൾ പ്രൊഡക്റ്റോന്നും പോകാറില്ല കാരണം പാവപ്പെട്ടവനാണെകിൽ അവനു ബജ ബജറ്റിനനുസരിച്ചുള്ള ചെരുപ്പേ വാങ്ങിക്കാൻ പാടുള്ളു ഇപ്പോൾ അത് ഡയറക്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കുന്നതാണ് അവിടുത്തെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണെന്നാണ് പറഞ്ഞത് എങ്ങനെലും തിരിച്ചു പറയാല്ലോ ഡയറക്റ്റ് എല്ലാം ലയ അതിൻ്റെ സിംബൽ വരെ കൊടുത്തിട്ടുണ്ട് സിംബലിനാണ് ഏറ്റവുംകൂടുതൽ ചാർജ് വരുന്നത് കാരണം അത് ഹാൻഡ് മൈടാ സർ അത് കൂടിപോയാൽ ഒരു ഫൈവ് തൗസൻഡ് അത്ര വരുള്ളൂ ഇനി താഴെ പോവാറില്ല വേണമെങ്കിൽ സർ നാലായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപക്ക് തരാം ഇപ്പം അതിന്റ്റെ താഴോട്ട് അഡ്വ അയ്യോ അതിൻ്റെ താഴോട്ട് വരുകയാണെങ്കിൽ അത്രയും ക്ലോസ് കിട്ടണമെന്നില്ല അല്ല സർ കാരണമെന്ന് പക്ഷേ നമുക്ക് അവിടുന്ന് എടുക്കുന്നതെ ഈ കറക്റ്റ് എമൗണ്ട് എടുത്തിട്ടാണ് കുറിച്ചു നമ്മളാ നമ്മുടെ കയ്യിന്ന് കൊടുക്കേണ്ടി വരും അല്ല സർ പിന്നെ സർ അല്ല സർ മുന്നേ അതുതന്നെ വാങ്ങിയെ സാ എന്നാലും നമുക്കൊരു ആറായിരം രൂപക്ക് സാധനം എടുത്ത് നമ്മളവിടെ ആറായിരം രൂപ കൊടുത്തിട്ടാണ് വന്നത് ഇപ്പോൾ സർ എൻ്റെ കയ്യിന്ന് അയ്യായിരം രൂപ വാങ്ങിക്കയാണെങ്കിൽ ഞാൻ ആയിരം രൂപ അവിടെ കൊടുക്കേണ്ടി വരും തിരിച്ചു അതെങ്ങനാണ് ഇപ്പോൾ എനിക്ക് വലുതായിട്ട് കമ്പനി ആയിട്ട് ബന്ധം ഇല്ലലോ നിങ്ങളും കസ്റ്റമറനായിട്ട് അല്ലിയോ മിണ്ടിട്ടാണ് കമ്പനി തുറന്ന് വെച്ചേക്കുന്നതു

സർ ഒരു ചെരുപ്പ് എത്ര അവർ പ്രോഡക്റ്റ് തരുന്നു നമ്മൾ വിൽക്കുന്നു അത്രേ ഉള്ളു ബന്ധം ഇല്ല സർ അയ്യായിരവാണ് അയ്യായിരം മാറ്റാൻ ഇനി അതിൻറ്റെ താഴെ പോവൂല സർ വേണമെ ഈ ഒരു ആഴ്ച്ച കഴിഞ്ഞാൽ ഓഫർ കാണും കേട്ടോ ആഹ് ഒരു സമയത്തു വന്നു കഴിയുമ്പം ഒരു ഓക്കേ സർ ഒരെണ്ണം ഈ അയ്യായിരം രൂപക്ക് ചെരുപ്പ് വാങ്ങിക്കയാണെങ്കിൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു അല്ലല്ല ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ ആണ് ഓക്കേ ഈ നമ്പറിൽത്തന്നെ വിളിച്ചാൽ മതി